ആ പറയൂ പറയൂ ആ എന്താണ് ക്ലിയർ ആയില്ല ആ ഓക്കേ എത്ര എത്ര കെ ജി യാണ് ഉദ്ദേശിക്കുന്നത് ആ ഇവിടെ ഇവിടെ ചെണ്ടുമല്ലിയുണ്ട് രണ്ടുതരം ചെണ്ടുമല്ലിയുണ്ട് പിന്നെ വാടാമല്ലി അതുപോലെ നമ്മൾ ഈ റോസ് പൂവ് പിന്നെ അങ്ങനത്തെ കുറച്ച് കളക്ഷൻ ഉണ്ടിവിടെ ഏതാ വേണ്ടത് നിങ്ങൾക്ക് ചെണ്ടുമല്ലി ഒക്കെ ഇപ്പമെന്ന് പറഞ്ഞാൽ റേയ്റ്റ് കൂടും അത് വൺ കെ ജി എൺപത് രൂപ വെച്ചിട്ടാണിപ്പോൾ പോകുന്നത്

ആ ആ ആ ഏതപ്പം നിങ്ങൾക്ക് ഓറഞ്ച് ആണോ വേണ്ടത് ഇപ്പോൾ അതിൻ്റെ കളക്ഷൻ കുറവാണ് ആ അത് ചിലപ്പോൾ അടുത്ത ആഴ്ചയാണ് വരികയുണ്ടാവുകയുള്ളു എപ്പഴാണ് പരിപാടി എപ്പഴാണ് നിങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഇവിടെ കുറച്ച് കമ്മിയായിരിക്കും ആ ഓക്കേ ഓക്കേ ഞങ്ങള് എന്തായാലും ഇനി ഇപ്പോൾ വൈകുന്നേരത്തിനുള്ളില് പറയുകയാണെങ്കില് ഞാൻ വിളിച്ചുപറയാം

അത് കിലോ ഇപ്പോൾ കൊടുക്കുന്നത് കിലോ ആണ് ഇപ്പോൾ ഇനി ഇപ്പോൾ ഇതിൻ്റെ വെറൈറ്റി കളേഴ്സ് വരാനുണ്ട് ആ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ വെള്ളവും അതേപോലെ റോസും പിന്നെ റെഡ്ഡും ആ ഓക്കേ ഓക്കേ പിന്നെ ഏതാണ് വേണ്ടത് മുല്ലപ്പൂ എന്തെങ്കിലും ആവശ്യമുണ്ടാകുവോ മുല്ലപ്പൂ റേയ്റ്റ് കമ്മിയാണ് അമ്പത് രൂപ വെച്ചിട്ടാണ് മോളാണ് മോളാണത് ആ ഓക്കേ പിന്നെ വേറെന്തെങ്കിലും തെച്ചിയൊന്നും ഉണ്ടാവില്ല ഉം ഉം പിന്നെ ഈ സീനിയ ഒക്കെ വേണമെങ്കിൽ ഓർഡറ് ഓർഡറ് പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും

ഇനി വാടാമല്ലി ഉണ്ട് അതുപോലെ ആ വാടാമല്ലി ഒരു കളറേ ഇവിടെ വരുന്നുള്ളൂ ആ എത്ര കിലോയാണ് വേണ്ടത് ആ ഇത് മാത്രം പോരെ വേറെ വെറൈറ്റി ആയിട്ട് ഉണ്ടാവില്ല ഇതുതന്നെ ഉണ്ടാവുകയുള്ളു ആ താമരയൊക്കെ അപ്പപ്പോൾ ഓർഡറ് ചെയ്തുകഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും ആമ്പല് അതുപോലത്തെയൊക്കെ അതെ ആ ആ

ആ വൈകുന്നേരം ആവുമ്പോഴേക്കും തരാം ആ ഓക്കേ ഓക്കേ ആ ആ ആ വൈകുന്നേരം വന്നാൽ മതി എന്നാല് ഗൂഗിൾ പേ ചെയ്ത് തന്ന് തന്നാൽ മതി ആ ഓക്കേ ശരി ശരി